ഹലോ ഇത് ആണോ ആ ഞാൻ ഒരു വീട് പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണി അങ്ങ് ഏൽപ്പിക്കാമെന്ന് ഓർത്തു കൊണ്ടായിരുന്നു നല്ല വർക്കാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട്

ആ അതെ അല്ലേ ആ ആ ചൂട് വെള്ളം വേണം ബാത്റൂമിലും കിച്ചണിലൊക്കെ അങ്ങനെയുള്ളത് ആ ആ ആ ഇത് മൊത്തം ആ രണ്ടു നില വീടാണ് അതിന് അനുസരിച്ചു പിന്നെ അതിൻ്റെ പുറത്തോട്ടൊക്കെ ലൈറ്റുകളൊക്കെ വേണം അങ്ങനെയുള്ള എല്ലാം വേണം ഇതിന് എത്ര രൂപയാകുന്നത് മൊത്തം കിച്ചൺ വർക്ക് അതല്ലേ ആ എ സി ഉണ്ട് ഇല്ല പ്ലംബിങും വേണം പ്ലംബിങ് സർവ്വതും നിങ്ങളെ ഏൽപ്പിക്കാനാണ് പ്ലംബിങ്ങും വയറിങ്ങും എല്ലാം ഇല്ല അല്ലേ ആ അന്നേരം ഞാൻ പറയട്ടെ ഇതിൻ്റെ അകത്ത് എ സി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ പുറത്ത് ആ ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങൾ ആ കൊണ്ടുവന്നു ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഒത്തിരി ഇതായിരുന്നു നല്ല കാര്യമായിരുന്നു ആ കമ്പനി ചെയ്യുന്നത് അല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ആ ഇത് പിന്നെ നമ്മൾ പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിൽ വരാൻ ചെയ്യാൻ പറ്റില്ല ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യണം ആ നമുക്ക്

ആ നമുക്ക് മൊത്തം ഉള്ളത് ഒന്ന് ആ ഓക്കെ ആ ആ പിന്നെ ആദ്യത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമ് ഹാള് ആ വർക്ക് ഏരിയ കിച്ചണ് ഇതെല്ലാം കൂടെ പിന്നെ മണ്ടേൽ നാല് ബെഡ്റൂമ് ആ ആ മൊത്തം അഞ്ചെണ്ണം വരും ആ ഉണ്ട് ഉണ്ട് ഉണ്ട് സി സി ടിവിയുടെ വേണം എസിയുടെ വേണം ആ വേണം വേണം പിന്നെ പിന്നെ ഇതൊക്കെ പിടിപ്പിക്കാനുള്ള വേണം ഫാനിൻ്റെ ഇത് ആ എ ആ ഓക്കെ ഓക്കെ എല്ലാ റൂമിലും എ സി വേണം

പിന്നെ സോളാറിൻ്റെ ഇത് വയ്ക്കുന്നതാണോ നല്ലത് അതോ കറൻ്റിൻ്റെതാണോ വെള്ളത്തിൻ്റെ ചൂട് എടുക്കാൻ നല്ലത് സോളാറ് ആ ആ സോളാറ് വച്ചാൽ അല്ലേ ആ ആ അപ്പോൾ ഇൻവെർട്ടറും വേണം കേട്ടോ ഇൻവെർട്ടറ് വയ്ക്കാനുള്ള സൗകര്യം കൂടെ വേണം ആ ആ പിന്നെ രൂപക്കൂടിൻ്റെ അവിടെ സെപ്പറേറ്റ് ലൈറ്റും എല്ലാം ഭംഗി എല്ലം ഗാർഡിയൻ ഉണ്ട് ഗാർഡിയൻ ഉണ്ട് ഗാർഡൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ പൈപ്പും ആ ഗാർഡിയൻ ഉണ്ട് അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്ത് വെള്ളമൊക്കെ വേണം നനയ്ക്കാൻ ഉള്ളതൊക്കെ പമ്പിങ് ചെയ്യാനുള്ളത് അതെ അല്ലേ ഓക്കെ അല്ലേ ആ

ആ ആ ആ ആ ആ ആ ആ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് ഇട്ടു തരണ ം കേട്ടോ ഒന്ന് കാണാനാണ് ആ രണ്ട് ഫോട്ടോസ് ആ ആ ആ കിച്ചൺ സീലിങ്ങൊക്കെ ചെയ്യുന്നതാണ് കിച്ചൺൻ്റെ സീലിങ്ങ് ഒക്കെയുണ്ട് സീലിങ്ങ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളും എല്ലാം അതു എല്ലാം ശ്രദ്ധിക്കണം ആ വേണം ആ ആ ആ ആ ഉണ്ടല്ലേ ആ ഒത്തിരി ഒത്തിരി ചെലവിൽ അല്ലാതെ നല്ല എല്ലാം നല്ല രീതിയിൽ ചെയ്യണം ആ ആ അതാണ് അത്രയും ആവുകയില്ലായിരിക്കും എല്ലാം അളന്നു പിടിച്ചു നോക്കുമ്പോൾ അല്ലേ

ആ ഇന്നത്തെ വിലക്കൊക്കെ എല്ലാത്തിനും നല്ല പൈസ ആകുമല്ലോ എല്ലാം നല്ല ലൈറ്റുകൾ വേണം ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ